ഇപ്പോള് ഉള്ള രീതിയിലുള്ള പാട്ടുകളില് എന്റെ ഭാഗത്തുനിന്ന് പറയാണെങ്കില് നിറയെ തെറ്റുകളുണ്ട് ഇപ്പോള് പണ്ടത്തെ പാട്ടുകളെന്ന് പറയുമ്പോഴത്തേനും എന്താണ് നല്ല ഈണത്തിലും ശ്രുതിയിലും എല്ലാം ലയിപ്പിച്ചുണ്ടാക്കണ പാട്ടാണ് ഇപ്പോള് നമ്മുട പാട്ടുകളുടെ രീതിയൊക്കെ ഒത്തിരി മാറി ഇപ്പോള് കുട്ടികളാണെങ്കില്പ്പോലും ഈ പറയുന്ന നല്ല നല്ല പാട്ടൊന്നും കേട്ട് വളർന്നിട്ടില്ല ഉദാഹരണം പറയാണെങ്കില് കെ ജെ യേശുദാസിന്റെ പാട്ടുകള് ബാലചന്ദ്രൻ മാഷിന്റെ പാട്ടുകള് അത് കൂടാതെ ജയരാജ് മാഷ് ജയരാജ് മാഷിന്റെ പാട്ടുകളൊന്നും കേട്ടു വളര്ന്ന കുട്ടികളല്ല ഇപ്പോള് അവര്ക്ക് വേണ്ടി ആധുനിക രീതിയിലുള്ള പാട്ടാണ് അതിലൊക്കെ ഒത്തിരീ എന്നാണ് പറയുന്നത് തെറ്റായ വാക്കുകളുണ്ട് ഒത്തിരീന്ന് വച്ചാല് ഒത്തിരി നമുക്കങ്ങനെ പറയാന് പറ്റുന്ന രീതിയിലുള്ള വാക്കുകളല്ല പല പാട്ടുകളിലിപ്പോള് ഉപയോഗിച്ചു വരുന്നത് അവിടെ ശ്രുതി ഇല്ല ഈണമില്ല താളമില്ല ഒന്നുമില്ല അപ്പോള് ഇപ്പോള് വരുന്ന കുറേ പാട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോള് ഉള്ള പിള്ളാര് പറയുന്നത് അങ്ങനെ പാടാം ഇങ്ങനെ പാടാം അങ്ങനൊക്കെ പാടാം പക്ഷെ എന്റെ രീതിയിലുള്ള പാട്ടില് നമ്മള് ഇത് ഏത് ഭാഷയിലാണേലും ഇപ്പോള് പറയുന്ന പാട്ടില് കുറേ വാക്കുകള് അത് നമ്മള്ക്കുപയോഗിക്കാന് പറ്റാത്ത വാക്കുകളൊക്കെയുണ്ട് അതൊക്കെ കുട്ടികള് കേട്ട് പഠിക്കുന്നതാണ് പിന്നെ അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്കായിട്ടൊന്നും ചെയ്യാന് പറ്റത്തില്ല അതിന് വേണ്ടീട്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള പാട്ടയിപ്പോയി അതിന് ഞാനൊരിക്കലും കുറ്റം പറയുന്നതല്ല പക്ഷെ കുട്ടികള് നല്ല പാട്ടും കേട്ട് വളരണമെന്നാഗ്രഹിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് ഞാനും എന്റെ ഭാഗത്തുനിന്നു നോക്കിക്കഴിഞ്ഞാല് കുട്ടികള് കേള്ക്കേണ്ട പാട്ടൊക്കെ നല്ല പാട്ടുകളുണ്ട് അതൊന്നും ഇപ്പോഴത്തെ കുട്ടികള് കേള്ക്കാറില്ല എല്ലാവരും ആധുനിക രീതിയിലുള്ള സംസാരിക്കുന്ന കൂട്ടുള്ള പാട്ടുകള് മാത്രേ കേള്ക്കാറുള്ളൂ അത് ശരിക്ക് ശരിക്ക് ശരിക്കും പറഞ്ഞാല് അതൊക്കെ അവര്ക്ക് വിനോദമായിരിക്കും പക്ഷെ നമ്മുടെ പ്രായത്തിലുള്ളാള്ക്കൊക്കെ വരുമ്പോഴത്തേനും എ എനിക്കതിഷ്ടമാണ് ഇഷ്ടമല്ലാന്ന് ഞാന് പറയുന്നതല്ല പക്ഷെ നല്ല പാട്ട് കേട്ട് വളരണം അതില് കൂടുതലെനിക്കൊന്നും പറയാനൊന്നുമില്ല പിന്നെ തെറ്റ് ഉണ്ടാവുക അതൊഴിവാക്കുക എന്നൊക്ക പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ കാലഘട്ടനുസരിച്ച് ജീവിച്ചു പോണമല്ലോ അപ്പോള് നമുക്കങ്ങനെ എടുത്തൊന്നുമ്പറയാനൊന്നും പറ്റത്തൊന്നുമില്ല